പലതരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുകാന്ന് പറയുന്നത് എല്ലാം വളരെ എളുപ്പം അല്ല വളരെ പാടുമല്ല ചില കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം ചിലപ്പം ബുദ്ധിമുട്ട് വരും എന്നാലും നമുക്ക് ചെയ്യാനായിട്ട് ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം ചെയ്യാം പണ്ട് കാലത്ത് അടുപ്പിനകത്തായിരുന്നു ആഹാരം ഉണ്ടാക്കുന്നത് അടുപ്പ് കല്ല് വെച്ചു ഭക്ഷണം ഉണ്ടാക്കുമ്പം അതിന് രുചി കൂടുതലുണ്ട് പെട്ടെന്ന് വെകുകയും ചെയ്യും ഇപ്പം ഗ്യാസ് വന്നപ്പൾത്തേനും കരി അതുപോലുള്ള കാര്യങ്ങൾ പിടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളു പക്ഷേ നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ പെട്ടന്ന് പെട്ടന്ന് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ഗ്യാസ് വെക്കുന്നത് വളരെ എളുപ്പമെന്ന് പറയും തേങ്ങയക്കെ അരക്കുമ്പം രണ്ടും മൂന്നും തേങ്ങയൊക്കെ പ്രാവിശ്യം തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ വെച്ച് കഴിയുമ്പഴ്ത്തേനൽപ്പം താമസം വരും പിന്നെ തേങ്ങ ചിരണ്ടി ചില കറിക്ക് തേങ്ങ ചിരണ്ടിയൊക്കെ ഇട്ടിട്ട് തോരനായിട്ട് ചിലർ മെഴുക്ക് വരട്ടിയായിട്ട് വെക്കുന്നേങ്കിൽ തേങ്ങ കൊത്തീട്ടാൽ മതി അല്ലേ രണ്ട് മുളക് അരിഞ്ഞിട്ടാൽ മതി അങ്ങനെക്കെ വെക്കുമ്പഴ്ത്തേന് അത് വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴ്ത്തേന് ഇച്ചിരി പാടാണ് അത് വെന്ത് വരാനായിട്ടക്കെ താമസം വരും പെട്ടെന്നൊക്കെ ചെയ്യുമ്പഴ്ത്തേന് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകും ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറുവൊക്കെ വേകാനായിട്ടൊക്കെ താമസം വരുന്നത് കൊണ്ട് അതനുസരിച്ച് നോക്കീം കണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ